പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പണ്ട് ഒരു അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് ആ ടൈം ആ ടൈമിലൊക്കെയാണ് ചെറുതായിട്ട് ഫോൺ കാര്യങ്ങളൊക്കെ ഇറങ്ങിത്തുടങ്ങിയത് ഫോൺ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചെറിയ രീതിയിലുള്ള നമുക്കിപ്പം വോക്കി ടോക്കി അങ്ങനത്തെ ടൈപ്പ് മൊബൈലുകളാണ് ഇറങ്ങിയത് നമുക്ക് അടുത്തുണ്ടെങ്കിൽ മാത്രമേ സംസാരിക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പറ്റുള്ളായിരുന്നു ഇപ്പം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് പിന്നീട് വന്നത് ചെറിയ രീതിയിലുള്ള മൊബൈൽ അതായത് നോക്കിയേന്റെ സെറ്റ് കാര്യങ്ങളൊക്കെയാണ് ഇറങ്ങിയത് അങ്ങനെ അങ്ങനെയാണ് ഓരോ ജീവിതം എന്താണ് പറയുക ഇപ്പോൾ ഒരു മൊബൈൽ വഴി നമുക്ക് സംസാരിക്കാനും നമു എന്ന് ക്കിപ്പം ആദ്യംന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കത്ത് കാര്യങ്ങളൊക്കെയായിരുന്നു അപ്പോൾ കത്ത് അയച്ചാൽ അവർക്കത് കിട്ടണമെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം എടുക്കും ഇപ്പം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സുഖം ആണോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് മൊബൈലിൽ വിളിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് പിന്നെ അതു കഴിഞ്ഞിട്ടൊക്കെയാണ് എന്താണ് പറയുക ടച്ച് ഫോൺ കാര്യങ്ങൾ നെറ്റ് അങ്ങനത്തെ പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വന്നത് അപ്പോൾ അതിലൂടെ നല്ല മാറ്റങ്ങളും നമ്മുടെ അതായത് ജീവിതത്തിലും മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് കാരണം എന്താണ് വെച്ചുകഴിഞ്ഞാൽ എല്ലാവരും ഇപ്പോൾ നോക്കുന്നത് ഇൻറ്റർനെറ്റ് കാര്യങ്ങളിലേക്ക് ഒക്കെയാണ് പണ്ട് പിന്നെ കളർ ടി വി കാര്യങ്ങളൊന്നും ഉണ്ടായില്ല ചെറിയ രീതിയിൽ ഒരു ടി വി മാത്രമായിരുന്നു അതിനകത്ത് ഒരു ദൂരദർശൻ എന്ന് പറഞ്ഞൊരു ചാനൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീടാണ് ഓരോ ചാനലുകൾ പുതിയ പുതിയ ചാനലുകൾ കാര്യങ്ങളൊക്കെ വന്നത്